ഹലോ ആ പറഞ്ഞോ ഏട്ടാ പറഞ്ഞോ പറഞ്ഞോ ഞാനെ അത് ഈ വലിയ കുളത്തുനിന്നാണ് വിളിക്കുന്നത് ഒരു ബേക്കറി നടത്തുന്ന ആളാണ് എനിക്കൊരു ആവശ്യമുണ്ട് എനിക്ക് ഈ ഡെയറി ഐറ്റംസിൻ്റെ വിലയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ചേട്ടാ ഇല്ല ഇല്ല ആ എനിക്ക് ഡെയറി ക്ലിയർ ആയോ ഇപ്പം ക്ലിയർ ആയോ എനിക്ക് ഡെയറി ഐറ്റംസ്സ് ഇല്ലേ പാല് തൈര് വെണ്ണ പേട ഹലോ ആ അങ്ങനെയുള്ള ഐറ്റത്തിൻ്റെ അങ്ങനെയുള്ള ഐറ്റത്തിൻ്റെ വിലയൊന്ന് അറിയാൻ വേണ്ടിയായിരുന്നെ

ആ അ അ ആ അ ആ അ അ

ആ ആ

മ്മ് മ്മ് മ്മ് ആ അ

എന്താ എന്താ ബട്ടറ് ബട്ടറ് ഓക്കെ ഓക്കെ ആ ആ നമ്മുടെ അമൂലിൻ്റെ അമൂൽ ടൈപ്പ് അമൂൽ ടൈപ്പ് അല്ലേ മ്മ് ആ അ ആ ആ ആ മനസിലായി മനസിലായി മനസിലായി മനസിലായി അപ്പോൾ ഇത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറിൻ്റെ പേരെന്താ ബിജു വർഗീസ് ആ ബിജു സാർ നമുക്ക് ഈ പാല് ഫ്രഷ് ആയിട്ടുള്ളത് മതി കാരണം ഇപ്പം പാക്കറ്റ് ആയിട്ടുള്ളത് വേണ്ട കാരണം ഫ്രഷ് ആയിട്ടുള്ളത് കൊടുത്ത് മൂവ്മെൻറ്റ് നല്ല മൂവ്മെൻറ്റാ അപ്പോൾ അത് ആൾക്കാരിക്ക് ഒരു നല്ല വിശ്വാസമാ ഫ്രഷ് ആയിട്ടുള്ളത് അ സാറെ ഡെലിവറി ഡെലിവറി പറ്റുമോ സാറെ ഡെലിവറി പറ്റുമോ ആ ഡേറ്റ് ഇപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടോ കൂടുതൽ ഓർഡറ് ഇത്ര ക്വാണ്ടിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആ അ ആ ഓക്കെ അ ആ റേറ്റിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല നമുക്കൊരു ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഒക്കെ ആവശ്യം വരുന്നുള്ളൂ ഇരുന്നൂറ് ഇരുന്നൂറ് ലിറ്ററിൻ്റെ ആ അപ്പോൾ പിന്നെ ഈ നമ്മുടെ തൈര് സാധാ നോർമൽ പാക്കിൽ തന്നെയായിരിക്കും വരുന്നത് അല്ലേ തൈര് ഇത് എല്ലാം കാണുമല്ലോ അല്ലേ ബുദ്ധിമുട്ടിലെങ്കിൽ ഫാം ഒന്ന് കാണാൻ വേണ്ടി ടൈം ഉണ്ടാകുമോ ആ ഉണ്ടല്ലേ ഓക്കെ ഓക്കെ ഓക്കെ അവിടെ വച്ച് സംസാരിക്കാം ബാക്കി കാര്യങ്ങൾ ഓക്കെ ആ താങ്ക് യൂ